ഞങ്ങളുടെ പ്രദേശത്തെന്നു പറഞ്ഞാല് ഒരുപാട് പള്ളികളും അമ്പലങ്ങളുമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോള് അവിടുത്തെ എല്ലായിടത്തേയും പള്ളിപ്പെരുന്നാളുകളും അമ്പലങ്ങളിലെ ഉത്സവങ്ങളുമെല്ലാന്തന്നെ വളരെ ആഘോഷമായിട്ട് തന്നെയാണ് നടത്തുന്നത് അപ്പോള് ടൂറിസ്റ്റുകള് ഒരുപാട് വരുന്നൊരു സ്ഥലമാണ് കുമരകം എന്ന് പറയുന്നത് അപ്പോള് ഇവിടുത്തെ പള്ളികളിലും അമ്പലങ്ങളിലുമൊക്കെ ഉത്സവങ്ങളുടെയൊ പെരുന്നാളുകളുടെയൊക്കെ സമയത്താണ് എങ്കില് ടൂറിസ്റ്റുകളുടെ അടുത്തുള്ള റിസോട്ടുകളിലെയൊക്കെ ടൂറിസ്റ്റുകളൊക്കെ നമ്മുടെ ഉത്സവത്തിന്റെ ഘോഷയാത്രയ്ക്കും അതുപോലെതന്നെ അമ്പലങ്ങളിലെ സോറി പെരുന്നാളുകളുടെ റാസായ്ക്കും അതുപോലെ തന്നെ കുർബാനയ്ക്കുമൊക്കെ ടൂറിസ്റ്റുകള് പങ്കെടുക്കാറൊക്കെയുണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യാനികളാണ് ടൂറിസ്റ്റുകളെങ്കിൽ അവര് കുർബാനയ്ക്കു വന്ന് പങ്കെടുക്കുകയും കാര്യങ്ങളുമൊക്കെ ചെയ്യാറുണ്ട് അപ്പോള് ഞനൊരു ക്രിസ്ത്യാനിയാണ് അപ്പോള് ഞാനങ്ങനെ പള്ളിയില് ടൂറിസ്റ്റുകളെ കണ്ടിട്ടുണ്ട് പല തവണ അപ്പോള് അവര് പ്രത്യേകിച്ച് ആഘോഷ പരിപാടികളെന്ന് പറയുമ്പോള് എല്ലാവർക്കും കൂടുതൽ താൽപ്പര്യമുള്ളതാണല്ലോ അപ്പോള് പെരുന്നാളുകളും ഉത്സവങ്ങളുമൊക്കെ വരുമ്പഴ്ത്തേക്കുവാണ് കൂടുതലായിട്ടും ആളുകള് അവിടുത്തെ ഇപ്പോള് ഉത്സവങ്ങൾക്കെക്കെയാണെങ്കില് താലപ്പൊലിയും അതുപോലെ പല പല എന്താ പറയുക താലപ്പൊലിയോടൊപ്പം തന്നെ ഈ വേഷങ്ങള് കെട്ടിയാടുന്ന തെയ്യം കോലങ്ങളും അങ്ങനെയൊക്കെയുണ്ട് ഉത്സവങ്ങൾക്ക് പല പഴയ കലകളൊക്കെ അല്ലെങ്കില് തിരുവാതിര അങ്ങനെയുള്ള കലകളുമൊക്കെ ഉണ്ടാവും ഇപ്പോള് പെരുന്നാളിനാണെങ്കിലും മാർഗ്ഗംകളി പോലെയുള്ള കലകളും അതുപോലെ തന്നെ ബാൻറ്റ് സെറ്റും ചെണ്ടയും മേളവും ആളുകള് തിരി കത്തിച്ച് വരിയായി പോകുന്നതും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടുതന്നെ അതെല്ലാം ചിലപ്പോള് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്കതൊക്കെ ഒരു കൗതുകമാണെപ്പോഴും കാരണം വഴിയിൽക്കൂടെയാണ് ഈ പല പ്രദക്ഷിണങ്ങളും ഘോഷയാത്രകളൊക്കെ പോകുന്നത് അപ്പോള് പുറത്തുനിന്നൊക്കെ വരുന്നവർക്ക് പുറംരാജ്യങ്ങളില്നിന്ന് വരുന്നവർക്കതൊക്കെ ഇപ്പോഴുമൊരു കൗതുകവും അത്ഭുതവുമൊക്കെയാണ് അപ്പോഴവരൊക്കെ അവരെല്ലാവരും തന്നെ പ്രത്യേകം അതൊക്കെ കാണാനും അവരുടെ ഫോണിലൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാനും ഒക്കെ നില്ക്കുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്